നമ്മൾ സിലിണ്ടർ പർച്ചെയ്സ് ചെയ്യുമ്പോൾ എപ്പോഴും ഓതറൈസ്ഡ് ഫ്രാഞ്ചൈസിന്നു തന്നെ പർച്ചെയ്സ് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ കമ്പനീടെ സേഫ്റ്റി ക്യാപ്പ് സിലിണ്ടറിൻ്റെ ഉണ്ടോ എന്നും സീൽ ബ്രോക്കൺ ആണൊന്നുള്ളത് നമ്മൾ ഡെലിവറി സമയത്ത് തന്നെ ചെക്ക് ചെയ്യുക സീൽ ബ്രോക്കൺ ആണെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ആ സിലിണ്ടർ നമ്മൾ എക്സെപ്റ്റ് ചെയ്യാൻ പാടില്ല അതുപോലെ തന്നെ അവിടതേൽ എക്സ്പയറി ഡേറ്റ് മസ്റ്റായിട്ടും ചെക്ക് ചെയ്യേണ്ടതാണ് ഡേറ്റ് കഴിഞ്ഞതാണെന്നുണ്ടെങ്കിൽ സിലിണ്ടർ ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യല്ല് അതുപോലെ തന്നെ നമുക്ക് അടുത്ത കാര്യം ചെക്ക് ചെയ്യാനുള്ളത് ഗ്യാസിൽ ലീക്ക് ഉണ്ടോ എന്നുള്ളതാണ് നമുക്ക് സോപ്പ് സൊല്യൂഷൻ വെച്ചിട്ട് സിലിണ്ടറിൻ്റെ ജോയ്ൻസ് വഴി സുരക്ഷാ പൈപ്പ് വഴി അപ്പ്ളൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലീക്ക് ഉണ്ടോന്നുള്ളത് ചെക്ക് ചെയ്യാൻ പറ്റും ഫ്ളയിം ഉപയോഗിച്ച് ഒരു കാരണവശാലും ലീക്ക് ചെക്ക് ചെയ്യാൻ പാടില്ല മറ്റ് പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് കിച്ചണിലെ ഡോർസ് എല്ലാം ഓപിൽ ഒ ഓപ്പൺ ആക്കിയിടാൻ ശ്രമിക്കുക കാരണം നല്ല വെന്റിലേഷൻ ആവശ്യമുള്ള കാര്യമാണ് അതുപോലെ തന്നെ പെട്ടന്ന് തീ പിടിക്കുന്ന പ്ലാസ്റ്റിക്ക് തുണി പോലുള്ള ഐറ്റംസ് അഹ് കുക്ക് ചെയ്യുന്ന സമയത്ത് അടുത്തു വെയ്ക്കാതിരിക്കുക അതുപോലെ തന്നെ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ എപ്പോഴും കിച്ചനിൽ തന്നെ ഉണ്ടെന്ന് സ്റ്റവ്നു അടുത്തുണ്ടെന്നുള്ളത് ഉറപ്പു വരുത്തേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ ധരിക്കുന്ന വസ്ത്രം പെട്ടെന്നു തീ പിടിക്കുന്ന ടൈപ്പിലുള്ള വസ്ത്രങ്ങൾ കഴിവതും ഉപയോഗിക്കാതിരിക്കുക ഉപയോഗത്തിന് ശേഷം നമ്മൾ എപ്പോഴും സ് നോബ് അതായത് സ്റ്റവ് ഓഫ് ചെയ്യുക അതുപോലെ തന്നെ സിലിണ്ടറിലെ നോബ് ഓഫ് ചെയ്ത് വെയ്ക്കേണ്ടതാണ് നമ്മൾ ദീർഘ കാലത്തിനി നമ്മൾ സ്ഥലത്തു ഇല്ലാന്നുണ്ടെങ്കിൽ സിലിണ്ടറിൻ്റെ മുകളിലത്തെ സേഫ്റ്റി ക്യാപ്പ് ഇട്ട് വെയ്ക്കാനായിട്ട് ഓർക്കുക അതുപോലെ തന്നെ സിലിണ്ടർ ഒരു കാരണവശാലും മറിച്ചോ ചെരിച്ചോ ഒന്നും വെച്ചു ഉപയോഗിക്കരുത് എപ്പോഴും സിലിണ്ടർ നേരെ തന്നെ വെയ്ക്കുക അതുപോലെ തന്നെ നമ്മുടെ സുരക്ഷാ ട്യൂബ് വർഷത്തിലൊന്നു മാറ്റാൻ ശ്രമിക്കുക അതുപോലെ തന്നെ അത് മാറ്റുമ്പോൾ മാറി മേടിക്കുമ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റവ് ഉപയോഗിക്കുന്ന റെഗുലേറ്റർ മേടിക്കുന്ന ഇത് എല്ലാം ഐ എസ് ഐ അപ്പ്രൂവ്ഡ് സാധനങ്ങൾ മാത്രമേ മേടിക്കാവുള്ളൂ നമ്മൾ ഇൻ കേസ് തീപിടുത്തമോ കാര്യങ്ങളോ ഉണ്ടാകുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല നമുക്ക് റെഗുലേറ്റർ ക്ലോസ് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഡോർസ് ഓപ്പൺ ആക്കി ഇടുക എപ്പോഴും അതുപോലെ തന്നെ ഫയർ എസ്റ്റിംഗുഷ് എന്നാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്ത കൊണ്ട് നമ്മളെന്താ സ്മെല്ല് ഇപ്പോൾ നമ്മൾ റൂമിലോട്ട് ചെല്ലുന്ന സമയത്ത് സ്മെല്ലോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ ലൈറ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ഓണാക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക സിലിണ്ടറിലെ സേഫ്റ്റി ക്യാപ്പ് ഇട്ട് വെയ്ക്കുക